ഞാൻ തയ്യൽ പഠിച്ച ഒരു വ്യക്തിയാണ് എനിക്ക് പിന്നേ എന്റെ തയ്യലിനകത്ത് തയ്യൽ പഠിച്ച സമയങ്ങളിലും അതു കഴിഞ്ഞു ആണെങ്കിലും ഒത്തിരിയും പ്രശ്നങ്ങൾ തയ്ച്ചു പഠിച്ചു കഴിഞ്ഞ് അതിന്റെ ആരംഭ ഘട്ടത്തിൽ തന്നെയും നമുക്ക് പിഴവുകളൊക്കെ സംഭവിക്കുന്നുണ്ട് അതെല്ലാം തെറ്റ് തിരുത്തി തിരുത്തി തിരുത്തി മുന്നോട്ടു വന്നത് ആദ്യം മുതൽ പഠിക്കു പഠിക്കുന്ന ആ സമയത്ത് മുതൽ അതുപോലെ തന്നെ മിഷ്യന്റെ പ്രോ പ്രോബ്ലങ്ങൾ കൊണ്ടും തെറ്റുകൾ ഒക്കെ ഉണ്ടാകാറുണ്ട് ആ തെറ്റുകളിലെ എല്ലാം നമ്മളത് പിന്നെ അതിന്റെ നോക്കി തിരുത്തി തിരുത്തി ആ തെറ്റുകള് വരാതിരിക്കാന് വേണ്ടിയ കാര്യങ്ങൾ എഴുതി വെച്ചു കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യും ഒരു ചുരിദാറോ ബ്ലൗസോ തയ്ച്ചാല് ആദ്യഘട്ടങ്ങളിലൊക്കെ നമുക്ക് എന്നാൽ ചിലപ്പം മറിഞ്ഞ് മൊത്തം തയ്ച്ചു കഴിഞ്ഞായിരിക്കും നോക്കുമ്പം ഇതു തിരിച്ചാൽ തയ്ച്ചിരിക്കുന്നതിനു നോക്കുന്നത് അപ്പോൾ പിന്നെ എന്നാ എടുക്കും അതു കുത്തിയിരുന്നു അഴിക്കണം അഴിച്ച് അത് മുഴുവന് കുത്തിയിരുന്നഴിച്ചു പിന്നെ തിരിച്ചു വെച്ച് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നീട് അതേ പറ്റി ആ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കി ഓരോന്നും ചെയ്യേണ്ടിയ കണക്ക് നോക്കി നോക്കി ശ്രദ്ധിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് ഓരോന്നും വന്നിരിക്കുന്നത് പിന്നെ ചിലപ്പം വെട്ടുമ്പം മുന്വശത്തെ കഴുത്ത് തിരിഞ്ഞ് പോകാറുണ്ട് വെട്ടുമ്പോൾ ചിലപ്പോൾ പുറകിലത്തത് ആയിരിക്കും നമ്മൾ അളെന്നെല്ലാം പിന് കഴുത്ത് അളന്നു വെട്ടുമ്പം ചിലപ്പം മുന് കഴുത്തിന്റെ അളവിൽ തന്നെ വെട്ടി പോകാറുണ്ട് ആ സമയത്ത് പിന്നെ അതിനെ നമ്മൾ കഷ്ണം തുണികൾ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെയും പിന്നെ എന്നതാണ് മഷീന് എന്തെങ്കിലും തയ്ച്ചു കൊണ്ടിരിക്കുമ്പം മഷീൻ കേടായി പോകും അപ്പോൾ നമ്മള്ക്ക് പിന്നെ അത് ആ മഷീന് നന്നാക്കി അതിനെ നന്നാക്കുന്ന ആള്ക്കാരെ വിളിച്ചു കൊണ്ടു വന്നു അതു ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഒരനുഭവമായി ഇപ്പോൾ എന്റെ സാധനങ്ങൾ എന്റെ തുണികൾ തന്നെയാണ് ഞാന് കൂടുതലും തയ്ക്കാറുള്ളത് പിന്നെ നൈറ്റി ചുരിദാര് ബ്ലൗസ് എനിക്ക് ഞാന് തയ്ക്കുന്ന ഡ്രസ്സുകൾ തന്നെയാണ് എനിക്ക് കംഫര്ട്ടബിളായിട്ടു തോന്നുന്നത് അതുകൊണ്ട് ഞാൻ എന്റെ സാധനങ്ങൾ ഞാന് തന്നെയാണ് തയ്ക്കുന്നത് ആദ്യകാലങ്ങളിലൊക്കെ ഇപ്പോൾ എനിക്ക് കണ്ണിനൊക്കെ കാഴ്ച കുറവുള്ളത് കൊണ്ട് എന്റേതു മാത്രം പിന്നെ എന്നെ കെട്ടിക്കുന്ന ആ സമയത്ത് കല്ല്യാണത്തിന്റെ ആ സമയത്തൊക്കെ ഞാന് മറ്റുള്ളവർക്ക് തയ്ച്ചു കൊടുക്കുകയും ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ വേറെ പുതി അതു കണക്കു തന്നെ അവരെ അറിയിക്കാതെ തന്നെ അവര്ക്കു വേണ്ടിയിട്ട് അതുപോലെയുള്ള തുണി എടുത്ത് തിരിച്ചു തയ്ച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാന് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടു തന്നു കഴിഞ്ഞാൽ നമ്മള്ക്ക് അവരുടെ പൈസ നശിപ്പിച്ച് കളയുന്ന ഒരു ആ സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നുമില്ലേ നമ്മുടെ കൈയ്യിൽ നിന്നു പാകപ്പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനു പൈസ കൊടുത്ത് അതുപോലെയുള്ള തുണി എടുത്തു തയ്ച്ചു കൊടുക്കും അവരറിയാതെ തന്നെ നമ്മൾ തയ്ച്ചു കൊടുക്കും അല്ല മറിഞ്ഞു പോയി അല്ലെങ്കില് ഇച്ചിരി കുറവുകൾ വന്നിട്ടുണ്ടെങ്കില് അതു നമ്മൾ മറ്റുള്ള വെട്ടു കഷ്ണങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തരത്തിലാണെങ്കിലും അങ്ങനെ ചെയ്തു കൊടുക്കും അങ്ങനെ കുറച്ചു സാമ്പത്തികമായിട്ടൊക്കെ ഞാന് ഉണ്ടാക്കിയിട്ടുണ്ട് വിവാഹത്തിനു മുമ്പു പിന്നെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്കു വേണ്ടത് എന്നുള്ള സാധനങ്ങൾ തയ്ച്ചും പിന്നെ എനിക്ക് ഉള്ളതും അത്യാവശ്യം പുറത്ത് പിന്നെ നമ്മുടെ അത്യാവശ്യം അറിയാവുന്ന ആൾക്കാർക്ക് തയ്ച്ചൊക്കെ കൊടുക്കും അപ്പോൾ ഉണ്ടാകും അതിപ്പോഴും ഉണ്ടാകുന്നുണ്ട് ഇപ്പം നമുക്ക് ചിലപ്പം ചുരിദാറിന്റെ ഒക്കെ സ്ലിറ്റ് വെട്ടുമ്പം ഇച്ചിരി മാറി പോകും പിന്നെ അളവെടുത്ത് അഴിച്ചു മൊത്തം അഴിച്ച് എന്നിട്ട് പിന്നെയും അളവെടുത്ത് അതു കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ഓരോ കാര്യം ഓരോ സമയം ഓരോ തയ്യലുകളും പുതിയ പുതിയ ഫാഷനുകളായിട്ട് വരുന്നുണ്ട് അതിന്റേതായ രീതിയിലുള്ള കുറവുകളൊക്കെ ഉണ്ടാകും പക്ഷെ അതിനെയൊക്കെ നമ്മൾ ഓവര് കം ചെയ്യും പിന്നേ തയ്ച്ചു തന്നെ ശ്രദ്ധിച്ചും പിന്നേ നമ്മൾ അളവുകൾ എഴുതി വെച്ച് പിന്നെ ഈ യൂട്യൂബിനകത്തു കൂടൊക്കെ ഒത്തിരി പുതിയ പുതിയ ഡിസൈന്സ് ഒക്കെ വരുമ്പോൾ അതനുസരിച്ചു വെട്ടി തയ്ക്കുന്നുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഉള്ള ഉടുപ്പുകൾ തയ്ക്കും പിന്നെ എന്റേതായ ചുരിദാറുകൾ പാന്റുകൾ അങ്ങനെയുള്ള സംഭവം പാന്റും ഷര്ട്ടും ഒന്നും തയ്ക്കത്തില്ല അല്ലാത്തുള്ള എല്ലാ സാധനങ്ങളും തയ്ക്കുകയും അത് ഫ്രീ ഇതു ചെയ്ത് നമ്മളതിനു ശരിയാക്കി അഥവാ നമ്മളതിനെ ശരിയാക്കി അഥവാ നമ്മൾ ഒരാൾക്ക് ഞാന് നഷ്ടം വരാത്ത രീതിയില് അതിനെ നമ്മൾ മാനേജ് ചെയ്തു കൊടുക്കുകയും ചെയ്യും ഒരു തുണി പോയെങ്കില് നമ്മളതു പോലെ തന്നെ അല്ലെ അവരോടു പറഞ്ഞിട്ട് വേറൊരു തുണി എടുത്തു തയ്ച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഇതിനെ നമ്മൾ പിന്നേ ഇതു ചെയ്യുന്നത് ആരെയും നമ്മൾ മുഖാന്തരം തയ്യലില് നിന്നുള്ള പിഴവ് മുഖാന്തരം അല്ലെ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല